ഞാൻ ശരിക്കും എഴുതാൻ ആഗ്രഹിക്കുന്നത് മതപരമായ വിഷയങ്ങളെ കുറിച്ചാണ് എന്നാൽ അത് എഴുതിയാൽ ഇപ്പോൾ അന്യ വേറെ മതത്തിൽപ്പെട്ടവർക്ക് അത് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇഷ്ടമാകുന്നതല്ല അതിൽ പ്രതികരിക്കാൻ ആൾക്കാർ ഒരുപാട് ഉണ്ടാകും അത് തീർച്ചയാണ് ഇപ്പോൾ ജാതിയും മതം അത് ശരിക്കും പറഞ്ഞു വന്നാൽ ഓരോ ഓരോ മനുഷ്യനും ജനിക്കുന്ന ജാതിയെന്ന് പറയുന്നത് അവർക്കെന്നും വിലപ്പെട്ടത് തന്നെയായിരിക്കും അത് മറ്റുള്ളവർ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ മറ്റേ ജാതികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് മോശമായി പറയുകയോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടികാട്ടുകയോ അത് കാട്ടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് അത് ശരിക്കും എന്നെ ബാധിക്കും അല്ലെങ്കിൽ എൻ്റെ എഴുത്തിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്കത് അത് എഴുതാനായിട്ട് സാധിക്കാത്തത് ഓരോരോ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് അവരുടേതാകുന്ന മതവികാരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ മതത്തിൻ്റെയും ഇതിൻ്റെയും അല്ലെങ്കിൽ വർഗ്ഗത്തിൻ്റെ ഒക്കെ പേരിൽ പരസ്പരം പോരടിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് വികാരം കൊണ്ട് വെറുതെ മറ്റ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ചെയ്ത് അവരുടെ വികാര പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ രീതിതന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ വളരെ അധികം ഉൽക്കൺഠയുണ്ട് അതുകൊണ്ട് ഞാൻ ആവശ്യങ്ങളെ കുറിച്ചിട്ട് എഴുതുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് എഴുതാൻ എഴുതാൻ ബുദ്ധിമുട്ട് കാട്ടുന്നു